ഹലോ ഗ്യാസ് ഏജന്സിയല്ലേ ഞങ്ങളൊരു ഞങ്ങള് പുതിയ വീട്ടിലേക്ക് താമസം മാറി എനിക്ക് ഈയൊരു ഗ്യാസിന് സിലണ്ടര് ബുക്ക് ചെയ്യേണ്ട തിന്റെ ആവശ്യമുണ്ട് അതിനാല് അതിലേക്ക് വിളിച്ചതാണ് ഒരു ഗ്യാസ് സിലണ്ടര് ബുക്ക് ചെയ്യുന്നതിനുവേണ്ടി പുതിയ ഡെലിവറി വിലാസവും പേരും ഞാന് പറഞ്ഞു തരാം അത് അത് പ്രകാരം എനിക്ക് പുതിയ സിലിണ്ടര് എത്തിച്ചുതരണം എത്രയും പെട്ടെന്ന് രാജ്യത്തെ സാഹചര്യത്തിന്റെ അടിയന്തിരാവസ്ഥയെ കുറിച്ചുള്ള ഈ സാഹചര്യത്തില് വേഗത്തിലുള്ള വേഗത്തില് എനിക്കൊരു ഗ്യാസ് സിലിണ്ടര് എത്തിച്ചുതരുന്നതിന് നടപടി ഉണ്ടാകണമെന്ന് അഭ്യര്ത്ഥിക്കുന്നു